കേരളത്തിലാദ്യമായി നിലവിൽ വന്ന കോളേജായ സി എം എസ് കോളേജും അതുപോലെതന്നെ കേരള പ്രസിദ്ധമായ കെ ഇ കോളേജ് മാന്നാനോം എൻ്റെ പ്രദേശത്തിന് അടുത്താണ് എന്നാൽ ഇവിടേൻ്റെ ബന്ധുക്കൾ ബന്ധുക്കളോ കുടുംബത്തിൽ നിന്ന് ആരോ പഠിക്കുന്നില്ല കോളേജുകള് കോളേജുകളെ പറ്റി പറയുവാണെങ്കിൽ രണ്ടും നല്ല അടിപൊളി കോളേജുകളാണ് അവിടെ എല്ലാത്തര സൗകര്യങ്ങളും ഉണ്ട് എല്ലാത്തര വിഷയങ്ങളും പഠിക്കാൻ പറ്റുന്നുമുണ്ട് ഈ കോളേജുകൾ നമ്മുടെ അടുത്തായ കൊണ്ട് വളരെ അധികം വിദ്യാർത്ഥികളെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീടിൻ്റെ പരിസരത്തൂടെ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട് പിന്നീട് വീടിൻ്റടുത്തുള്ള വീടിൻ്റടുത്ത് കോളേജുകളൊണ്ടെന്ന് പറയുന്നത് ഒരു അഭിമാനമായ അഭിമാനകരമായൊരു കാര്യമാണ് കോളേജുകളെന്നും വിദ്യാഭ്യാസത്തിനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന സ്ഥാപനങ്ങളാണ് അപ്പോൾ നമ്മുടെ സ നമ്മുടെ വീടിൻ്റടുത്ത് കോളേജുകൾ വരുകാ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ പ്രദേശം തന്നെ വികസിക്കുന്ന പോല് വികസിക്കുന്നതിന് തുല്യമാണ്